നമ്മുടെ ഇവിടെയുള്ള ആശുപത്രികൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവ പരിചരണം നല്ല രീതിയിലാണ് നടക്കുന്നത് പക്ഷെ കുറച്ചുംകൂടി മെച്ചപ്പെട്ട രീതി ആക്കണമെങ്കിൽ ഇപ്പം നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ട ആവശ്യം അത്യാവശ്യമാണുള്ളത് കാരണം ഇപ്പോഴത്തെ ഇവിടുത്തെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നഴ്സുമാരൊന്നും വലിയ രീതിയിലൊന്നും എന്താ പറയുക പ്രസവ പരിചരണം ഒന്നും നടത്തുന്നില്ല കാരണം അവരെ എന്ത് പറയും ചീത്ത പറയും ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ നമ്മളെ എന്താ പറയുക നമ്മളെ വേദനിപ്പിക്കാണ്ട് നമ്മളോട് അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിലാണ് മുന്നോട്ട് പോവുന്നത് പക്ഷെ ഗവണ്മെൻ്റ് ഹോസ്പിറ്റലിൽ തീരെ നല്ല രീതിയിലൊന്നും നോക്കുന്നില്ല ഇപ്പോൾ ഈ ഇടയ്ക്ക് എന്നെ ഒരു കുട്ടി നഴ്സിൻ്റെ അടുത്തു നിന്ന് താഴെ വീണിട്ട് കുട്ടി മരിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ അതിലും നല്ലത് നമ്മൾ കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ബന്ധപ്പെടാറ് പൈസ കൊടുത്താലും നല്ല രീതിയിലുള്ള ചികിത്സയാണ് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് കുട്ടികളെ നോക്കുന്നതും ഇതേ അവസ്ഥ തന്നെയാണ് കുട്ടികളെ മര്യാദക്ക് നോക്കില്ല അവർ എന്താ പറയുക മരുന്ന് മാറ്റിവച്ചിട്ട് ഈയടുത്തൊരു മാറ്റി കുത്തിയിട്ട് ഒരു പനിക്ക് വന്ന കുട്ടീൻ്റെ ദേഹത്ത് വേറെ എന്തോ ഒരു മരുന്ന് കുത്തിയിട്ട് മരിക്കുക വരെ ഉണ്ടായി അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പം എല്ലാം ഒന്ന് മെച്ചപ്പെടുത്തിയാൽ നല്ലതായിരിക്കും